ഈ സമൂഹത്തിൽ അസമത്വം ഒരു വലിയ ഒരു വെല്ലുവിളിയാണ് പ്രത്യേകിച്ചു ഒരിക്കലും ഇപ്പോൾ ഇപ്പൊഴത്തെ നിലയിൽ വച്ചു നോക്കുമ്പോൾ സ്ത്രീകൾ ഒരിക്കലും പുരുഷന്മാരായിട്ട് തുല്യത പല മേഖലകളിലും

പക്ഷെ വളരെ വളരെ ഈ ലെവലിൽ മുന്നേറ്റങ്ങളുണ്ടായിട്ടുണ്ട് ഇപ്പോഴും സ്ത്രീകൾ ഇന്ത്യയിൽല് പൂർണ സുരക്ഷിതരാണെന്ന് പറയാൻ പറ്റില്ല മിക്ക ഇടങ്ങളിലും അവർക്ക് ഒത്തിരി ഒത്തിരി വെല്ലുവിളികൾ ഉണ്ട് തുല്യ അവസരങ്ങൾ കിട്ടുന്നില്ല അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഒത്തിരി മുന്നോട്ട് പോകേണ്ടതുണ്ട് ഒരു തുല്യത ബോധം സ്ത്രീകൾക്ക് വരുന്ന ലെവലിലേക്ക് നമ്മുടെ നാട് മാറണമെങ്കിൽ അതിൽ ഇനിയും ഒത്തിരി കാലങ്ങൾ താണ്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത്